ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അതായത് ഭൂരിഭാഗം ആൾക്കാരും സംസാരിക്കുന്നത് മലയാളമാണ് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഹിന്ദി സംസാരിക്കുന്നുള്ളൂ മലയാളം സംസാരിക്കുന്നത് മുഴുവൻ നമ്മളെ നാട്ടിലെ കാണപ്പെടുന്ന സാധാരണ ജനങ്ങളാണ് ഹിന്ദി എന്ന ഭാഷ ഉപയോഗിക്കുന്നത് പുറം നാട്ടിൽ നിന്നും വന്ന ബംഗാൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നു വന്ന ജനങ്ങളാണ് അപ്പോൾ അവരോട് നേരിട്ട് സംസാരിക്കാൻവേണ്ടി നമ്മൾ ചെറിയ രീതിയിലുള്ള ഹിന്ദി പോലെയുള്ള ഭാഷകൾ നമ്മൾ സംസാരിക്കും അത്യാവശ്യം നമുക്ക് സംസാരിക്കാൻ മലയാളം തന്നെ അധികമാണ് മലയാളം സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതലും പിന്നെ ചെറിയ രീതിയിൽ എല്ലാവർക്കും ഹിന്ദി എന്ന ഭാഷയെപ്പറ്റി അറിയുന്നതുകൊണ്ടും സംസാരിക്കാൻ ആവുന്നതുകൊണ്ടും അന്യസംസ്ഥാന തൊഴിലാളികളോടും കൂടി നമുക്ക് സംസാരത്തിലേർപ്പെടാൻ പറ്റുന്നുണ്ട്